ഹലോ ആ ഞാൻ ടീനയാരുന്നു ഞാൻ എന്റെ ബാഗി അവിടെ വെച്ചിരുന്നതാണ് എന്റെ നമ്മുടെ റൂമിൽ പക്ഷേ അത് അവിടുന്ന് കാണുന്നില്ല ഇന്ന് ഞാൻ പോരാൻ നേരത്താണ് ഞാൻ നോക്കിയത് പോരാൻ നേരത്ത് നാല് മണിയായപ്പോൾ നോക്കിയപ്പം അവിടെ കാണുന്നില്ലായിരുന്നു ആ ഷെൽഫിലല്ല ഞാൻ നമ്മുടെ ഡെസ്ക്കേൽ മേശ പുറത്ത് തന്നെയാണ് ഞാൻ വെച്ചത് പക്ഷേ പോരാൻ നേരത്ത് ഞാൻ നോക്കിയിട്ട് കാണാൻ എന്റെ ഒരു ബ്രൌൺ കളറിലുള്ള ബായ്ഗാണ് ഇടക്ക് ഉച്ചയ്ക്ക് ഞാൻ നോക്കി ഉച്ചയ്ക്ക് അവിടെ ഇരുപ്പുണ്ടായിരുന്നു കുറച്ച് പൈസേം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റകത്തെ

ആ ആ ഇടക്ക് നമ്മൾ അങ്ങനെ പോകുന്നുള്ള കാര്യം പെട്ടെന്ന് അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ എപ്പോഴും സുരക്ഷിതരായിട്ടിരിക്കുന്നതല്ലേ ആ ആ ഒന്ന് ഒന്ന് ഒന്ന് നോക്കിയിട്ടേ ആ അത് നേരത്തെ പോയായിരുന്നു ആ ഓക്കെ ആ ഉണ്ട് ആ പക്ഷേ സംശയം സംശയം എന്ന് പറയാനാരുമില്ലാ പിന്നെയാ സി സി ടി വ്യൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിലെ ആ ആ റൂമിനൊന്ന് നോക്കിയും ഇല്ല ഇല്ല ആ നമുക്ക് ആ സി സി ടി വീ കൂടൊന്ന് ചെക്ക് ചെയ്യാണെങ്കിൽ ആ അതും കൂടൊന്ന് ആ നം ഇതിനിടക്ക് നമ്മൾ ഡോറ് ഓപ്പണായി കിടന്ന സമയത്ത് ആരെങ്കിലും വന്ന് കയറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതൊന്ന് അറിയണമല്ലോ ആരുടെലൊരു ആരും കയറിയിട്ടില്ല എന്നാണല്ലേ ആ ഇനി ഇപ്പം അതെങ്ങനെ കിട്ടും ഞാൻ അങ്ങനെ അങ്ങനെ എടുത്തതായിട്ട് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല ഇല്ല നമുക്ക് അവിടെ ഓഫീസിലും കൂടെ നമുക്ക് ഒന്ന് നോക്കാണെങ്കിൽ നല്ലതായിരിക്കും ഓഫീസിൽ ഞാൻ ഇടക്കൊന്ന് കയറിയായിരുന്നു ഇടക്കൊന്ന് കയറിയായിരുന്നു ആ അപ്പം എടുത്ത് കയറിയിട്ടുണ്ടോ ഞാൻ അങ്ങെടുത്തോണ്ട് കയറിയായിരുന്നോന്ന് പൈസ കൂടാതെ വേറെ അധികം സാധനങ്ങളൊന്നും ഇല്ല പിന്നൊന്ന് രണ്ട് ബുക്കെനിക്ക് ഇപോർട്ടൻറ്റായ ഒന്ന് രണ്ട് ബുക്കുകളുണ്ടായിരുന്നു അത് വേണ്ടതായിരുന്നു അതൊരു അഞ്ച് അയ്യായിരം സംത്തിങ്ങുണ്ടായിരുന്നു ആ

ആ അതേതേ അതേ ആ ആ ഓഫീസിലേ ഓഫീസിൽ ഷെൽഫിലൊന്ന് നോക്കണമല്ലേ ചിലപ്പം അവിടെ വെച്ചോ എന്ന് എനിക്ക് ഒരു ഒരു ഒരു ഓർമ്മ മറ്റേ ഷെൽഫിൽ ചിലപ്പോൾ കാണുമായിരിക്കും ഒന്ന് നോക്കാമോ ആ ആ നീല തന്നെ നല്ലോപ്പണായിട്ടുള്ള നീല ഷെൽഫിൽ ഇല്ലാലേ

ആ ആ ആ അതേ അതേ ആ ഒന്ന് വിളിക്കണേ ആ കിട്ടിയാൽ ഒന്ന് വിളിക്കണേ ആ ഓക്കേ ആ ഓക്കേ ബൈ